ഇപ്പം ബെർത്ത്ഡേ അതുപോല തന്നെ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ നൂല് കെട്ട് അതേപോലതന്നെ വിവാഹ ദിവസം അതേപോലെതന്നെ ഹൌസ് വാമിങ്ങം അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളില് കൂട്ടുകാരും വീട്ടുകാരൊക്കെ ഒത്തുചേർന്ന് ആഘോഷിക്കാറുണ്ട് ഇപ്പം ഇപ്പം എൻറെ ഈന് മുമ്പ് എൻറെ ഏട്ടൻ്റെ അനിയൻ്റെ ബെർത്തഡേ ഉണ്ടായിരുന്നു അനിയൻ മീൻസ് ഇപ്പം ഏട്ടൻ്റെ മോൻറെ ബെർത്തഡേ മീൻസ് എൻറെ കുഞ്ഞനിയൻറെ ബെർത്തഡേ കുഞ്ഞനിയൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മെമേന്നാണ് അവൻ വിളിക്കുക അപ്പോൾ എൻറെ മോൻ്റെ ബെർത്ത്ഡേ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങള് ഒരുപാട് കുടുംബക്കാരെയൊക്കെ വിളിച്ച് ആഘോഷിചിട്ടുണ്ടായിരുന്നു പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആഘോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേയ്ക്ക് മുറിക്കല് അതുപോലെ തന്നെ ഭക്ഷണം ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ കുഞ്ഞി കുട്ടികളുടെ പ്രോഗ്രാംസ് ഡാൻസും പാട്ടൊക്കെ വെച്ചിട്ട് അടിച്ച്പൊളിച്ചിരുന്നു ഞങ്ങളുടെ കസിൻ്റെ കല്യാണത്തിന് കസിൻസിൻറെ കല്യാണം ഒരുപാട് ഉണ്ടാകാറുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒര് ആഴ്ച മുമ്പേ അവിടെ തന്നെ ഉണ്ടാകും ഭയങ്കര ആഘോഷമായിരിക്കും ഡാൻസും പാട്ടും അങ്ങനങ്ങനെ ചീട്ടുകളിയും അതുപോലെ തന്നെ ഒരുപാട് ആഘോഷങ്ങളും ഉണ്ടാകും പിന്നെ നമ്മള് ആഘോഷിക്കാത്ത ചില സന്ദർഭങ്ങള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മരണ വീടൊക്കെയാണ് അവിടെ നമ്മള് ആഘോഷിക്കാറില്ല എന്നാല് പോലും എല്ലാരും ഒത്ത് ചേരുമ്പം ഒരു ഇതാണ് പക്ഷേ നമ്മള് അതിൽ ഏറെ സങ്കടങ്ങളുണ്ടാവാറുണ്ട്